പാടാനായി ഒരു ദിവസത്തിൽ ഒരുപാട് സമയം ഞാൻ ചിലവഴിക്കാറുണ്ട് കാരണം അതിനിത്ര സമയമെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കാറില്ല പക്ഷേ എനിക്ക് എപ്പോഴൊക്കെ ഫ്രീ ടൈം കിട്ടുന്നുണ്ടോ അപ്പം ആ സമയങ്ങളിലെല്ലാം ഞാൻ സംഗീതം പാട്ട് പാടാറുണ്ട് സംഗീതം കേൾക്കാറുണ്ട് മൂളിപ്പാട്ടെങ്കിലും പാടാ എപ്പോഴും മൂളിപ്പാട്ട് പാടി നടക്കുന്നൊരു വ്യക്തികളിലൊന്നാണ് ഞാൻ കാരണം വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ എല്ലാം എൻ്റെ സി എൻ്റെ ചിന്തയിൽ സംഗീതവും പാട്ടും ഒക്കെ തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളുടെ വരികൾ ഞാൻ പറ്റുന്നത്ര എഴുതി എടുക്കും അത് പാടിക്കൊണ്ട് നടക്കും ഒറ്റയ്ക്കാകുന്ന അവസരങ്ങളിലെല്ലാം കാരണം എൻ്റെ ചുറ്റും ആളില്ലെങ്കിൽ ഉടനെ തന്നെ ഞാൻ ചെയ്യാറ് പാടുക എന്നുള്ളത് തന്നെയാണ് അതിപ്പോൾ ഏത് സ്ഥലം എങ്ങനെയുള്ള സ്ഥലമാണ് എന്നൊന്നും നോക്കാറില്ല ഞാൻ ഒ ഞാൻ തനിച്ചാണെങ്കിൽ എന്നെ ഏറ്റവും അധികം കംഫർട്ട് തരുന്നത് സംഗീതം എന്ന് പറയുന്ന ഒരു പ്രക്രിയ തന്നെയാണ് അതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെ ഫ്രീ ടൈം കിട്ടുന്നുണ്ടോ അ എപ്പോഴൊക്കെ എനിക്ക് പാടുവാൻ തോന്നുന്നുണ്ടോ അപ്പോഴൊക്കെ ഞാൻ വളരെ ഉച്ചത്തിൽ തന്നെ പാടും അതുപോലെ തന്നെ ഞാൻ പാടുന്നത് ഞാൻ റെക്കോർഡ് ചെയ്ത് വയ്ക്കാറുണ്ട് എന്നിട്ടത് കേൾക്കാറുണ്ട് ആ സമയം പാടുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് അത് വളരെ അധികം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ് കാരണം നമുക്ക് ഇഷ്ടപെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് മനസ്സിന് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കുന്നത് അതുപോലെ അതുകൊണ്ടുതന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് സംഗീതം അതിൽ ഞാൻ എപ്പോഴും പാടും എനിക്കിഷ്ടപ്പെട്ട പാട്ടുകൾ ചിലപ്പോൾ വരികൾ തെറ്റായിരിക്കും എങ്കിലും ഞാനത് പാടാറുണ്ട് പാട്ട് പഠിക്കുക എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ കൂടുതലും കേട്ട് തന്നെയാണ് പഠിക്കാറ് അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഇഷ്ടപെട്ട് കഴിയുമ്പോൾ അത് പരമാവധി കേൾക്കാനും ശ്രമിക്കും കേട്ട് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ വരികൾ നമ്മുടെ മനസ്സിലേക്ക് എത്തും പിന്നെ ആ ആദ്യം നമ്മുടെ മനസ്സിലെത്തുക ട്യൂൺ ആണ് ആ ട്യൂൺ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് ലിറിക്സ് നോക്കും ലിറിക്സ് നോക്കി കഴിയുമ്പം പിന്നെ അത് പാടുക എന്നുള്ളതാണ് ആദ്യമൊക്കെ പാടുമ്പോൾ ശരിയായെന്നൊന്നും വരില്ല പക്ഷേ ഇങ്ങനെ പാടി പാടിയാണ് നമ്മൾ തെളിയുന്നത് അതുകൊണ്ട് തന്നെ അവസരങ്ങളില്ലെല്ലാം പാടാറുണ്ട് ഇപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ കരോക്കെ ഡൗൺലോഡ് ചെയ്യാറുണ്ട് കരോക്കെ ഡൗൺലോഡ് ചെയ്ത് പാട്ട് പാടാറുണ്ട് പാട്ട് പാടിയത് റെക്കോർഡ് ചെയ്ത് തന്നത്താൻ കേൾക്കാറുണ്ട് എന്തൊക്കെയാണ് എൻ്റെ പാട്ടുകളിലെ തെറ്റ് എങ്ങനെയൊക്കെ അതിൽ മാറ്റങ്ങൾ വരുത്താം എന്നൊക്കെ ഞാൻ വളരെ അധികം ചിന്തിക്കുന്നൊരു വ്യക്തിയാണ് അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ഒക്കെ വരുമ്പോൾ അത് വീട്ടിനടുത്തുള്ള കല്യാണങ്ങൾ വീട് വെഞ്ചരിപ്പ് അങ്ങനെയുള്ള ആഘോഷങ്ങളളുടെ സന്ദർഭങ്ങളിലൊക്കെ പാട്ട് പാടാൻ ഒരു അവസരം കിട്ടി കഴിഞ്ഞാൽ ഞാനത് പരമാവധി വിനിയോഗിക്കാറുണ്ട് കാരണം ആ പാട്ട് പാടുക എന്നുള്ളത് അങ്ങനെ എല്ലാവരെയും കൊണ്ടും പറ്റുന്നൊരു കാര്യമൊന്നുമല്ല കാരണം അതിനൊക്കെ ഒരു കഴിവ് ജന്മനാ കഴിവുള്ളവർക്ക് മാത്രമേ പാട്ട് പാടാൻ കഴിവ് മാത്രം പോരാ അല്പം ധൈര്യം ഒക്കെ ഉള്ളവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ പാട്ട് നല്ല രീതിക്ക് പാടാറുണ്ട് എന്നാണെൻ്റെ ഒരു ചിന്ത എന്നെകൊണ്ട് സാധിക്കുന്ന എല്ലാ അവസരങ്ങളിലും ഞാൻ പാടും ബസ്സിൽ ഇരിക്കുമ്പോൾ പാട്ട് കേൾക്കാറുണ്ട് വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ ഞാൻ പാട്ട് കേൾക്കാറുണ്ട് ഒറ്റയ്ക്കായിരിക്കുന്ന സമയങ്ങളിൽ ഞാൻ പാടാറുണ്ട് വളരെ ഉച്ചത്തിൽ പാടാറുണ്ട് എങ്കിലും എനിക്ക് എൻ്റെ ശബ്ദം കൂടുതൽ തെളിമയുള്ളതായി കേൾക്കാൻ സാധിക്കുകയുള്ളൂ കൂടുതലും എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ റൊമാൻറിക്ക് സോങ്ങ്സ് തന്നെയാണ് മെലഡി സോങ്ങ്സ് ആണ് അതുപോലെ തന്നെ എനിക്ക് റാപ്പ് സോങ്ങ്സ് ഇഷ്ടമാണ് അപ്പം എൻ്റെ ഇഷ്ടത്തിലുള്ള സോങ്ങുകൾ ഞാൻ കൂടുതൽ കേൾക്കുക അതുവഴി കൂടുതൽ ഞാൻ പാടാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും ചെയ്യാറുണ്ട് അങ്ങനെ പാട്ട് എൻ്റെ ജീവിതവുമായി ഏറ്റവുമധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്ന് തന്നെയാണ്